ഞങ്ങളടുത്ത് ആർട്ട് സപ്ലൈ സ്റ്റോർ മാത്രമായിട്ടങ്ങനൊരു സ്റ്റോറില്ല അല്ലാതെ സ്റ്റേഷനറി ഐറ്റം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വലിയ അങ്ങനെ പ്രഫഷൻ ഒരു കലാകാരി ഒന്നുമല്ല അപ്പം എന്താണ് അത്യാവശ്യം വേണ്ട കുറേ പെയിൻറ്റ് ബ്രഷ് കാര്യങ്ങളതൊക്കെ ഞങ്ങൾ അടുത്ത സ്റ്റേഷനറി കടകളിലൊക്കെ തന്നെ അവൈലബിളാണ് അപ്പം പിന്നെ അതിനകത്തു നിന്ന് എന്താണ് കലയിൽ താ താ എന്താണ് എനിക്ക് താത്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞാ എനിക്ക് പ്രിയ്യപ്പെട്ടതെന്നു പറയാനായിട്ട് പെയിൻറ്റ് ബ്രഷ് ക്യാൻവാസ് അങ്ങനെയുള്ള ക്യാൻവാസുകളുണ്ടല്ലോ പല ടൈപ്പിൽ അങ്ങനത്തെ അതൊക്കെ തന്നെയാണെനിക്ക് പ്രിയപ്പെട്ടത് പിന്നെ കരകൗശലം മറ്റേ ശിൽപ്പങ്ങൾ സ്കൾപ്ചർ ഞാൻ ചെയ്യാറില്ല പൈൻറ്റിങ്ങാണ് ചെയ്യാറുള്ളത്